മറ്റു ഗ്രഹങ്ങൾ ഭാഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യ ഒന്നാകെ പോയിട്ടുള്ളത് ചന്ദ്രനിലാണ് അവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ മറ്റേ ആ ഡ്രസ്സ് ഇല്ലാതെ നമുക്ക് ഒരു തുള്ളി ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല പിന്നേ എന്നു വച്ചാൽ അവിടെ ചെന്നാൽ അവിടെ വെള്ളമില്ല കഴിക്കാൻ ഫുഡ് ഇല്ല അങ്ങനെ കുറേ ഇത് ഉണ്ട് ഞമ്മടെ ഭൂമിയിലാണെങ്കിൽ ഭക്ഷണത്തിന് ഭക്ഷണം വെള്ളത്തിന് വെള്ളം പിന്നെ ന മ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് പക്ഷേ മറ്റു ഗ്രഹങ്ങളൊന്നും ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ അവിടെ ഒന്നും ഒരു മനുഷ്യരും ജീവിക്കാറുമില്ല എക്സാക്റ്റ്ലി അങ്ങനെയാണ് ഇതു വരെ ഒരു വേറെ ഒരു ഗ്രഹത്തിലും ഇങ്ങനെ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്താണ് ഇതേപോലെ ഭൂമിയെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ഗ്രഹങ്ങളാണ് അന്നൊന്നും ഇതുവരെ ഒരു ഗ്രഹത്തിനെയും കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം ഈ നിമഷം വരെ ഒരു ഇതിലും കണ്ടുപിടിച്ചിട്ടില്ല